ഇന്നത്തെ കാലത്തെ തലമുറയിലെ കുട്ടികളോട് കൃഷിചെയ്യാൻ താൽപര്യമുണ്ടോന്ന് ചോദിച്ചാൽ അവരാദ്യം പറയുന്ന ഉത്തരം ഇല്ല താൽപര്യമില്ലാന്ന് തന്നെയായിരിക്കും ഏകദേശം ഒരു രണ്ടോ മൂന്നോ ശതമാനം കുട്ടികൾ മാത്രമായിരിക്കും കൃഷിയിലേക്ക് താല്പര്യത്തോടെ വരുന്ന ആൾക്കാർ അവർ പ്രധാനമായിട്ടും നോക്കുന്നത് കുറച്ച് നാട്ടിൽ തന്നെ നിന്നിട്ട് ശമ്പളോണ്ടാക്കാം നല്ല വരുമാനോണ്ടാക്കാം എന്നത് തന്നെയാണ് അതേപോലെ ചില ആൾക്കാരുണ്ട് ആ രണ്ട് ശതമാനം ആൾക്കാരിലുൾപ്പെടുന്ന ചില ആൾക്കാരുണ്ട് അവർ അവർ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് അവർ ഡിഗ്രി പഠനകാലത്ത് അതൊക്കെ മതിയാക്കി വന്നിട്ട് എനിക്ക് ഇതുപോലുള്ളത് പഠിക്കാൻ താൽപ്പര്യമില്ല എനിക്ക് കൃഷിയാണിഷ്ടം അതിനോടാണ് താൽപ്പര്യം എന്ന് പറഞ്ഞ് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ നാട്ടുകാരൊക്കെ എന്തെക്കെയോ പറയും അവരെ കാരണം പഠിക്കുന്നത് കളഞ്ഞിട്ട് അവൻ നാട്ടിൽ വന്നിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഓൻ പശുക്കളെ നോക്കുന്നുണ്ട് ചെടി വളർത്തുന്നുണ്ട് പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് വളരെ വളരെ പരിഹാസമുള്ള കാര്യമാണ് പക്ഷേ ആ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് അതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നാട്ടിലന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട് സ്വന്തായിട്ടൊരു വരുമാനമുണ്ടെന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അവർ നാട്ടിൽ നിന്ന് പശുക്കളെ വളർത്താനും പശുക്കളെ വലിയൊരു ഫാമും അതിൽ നിന്ന് കിട്ടുന്ന പാൽ സൊസൈറ്റിൽ കൊണ്ട് കൊടുത്ത് അത് ശുദ്ധമായ പാൽ നാട്ട്ക്കാർക്ക് കൊണ്ട് കൊട്ക്കേം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കേം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലുണ്ടാവുന്ന മെയ്നായിട്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇടക്കുണ്ടാവുന്ന വിലയിടിച്ചിൽ തന്നെയാന്ന് ഇപ്പം അടക്ക കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ ആൾക്കാരുണ്ട് വിദ്യാർഥിയ്ക്കായിട്ട്ള്ളവരുണ്ട് പഠനം കഴിഞ്ഞ് ചെയ്യുന്നവരുണ്ട് അവരക്കെ നേരിടുന്ന പ്രശ്നമാണ് വില പെട്ടന്ന് കുറയുന്നത് അടയ്ക്കോക്കത്രയും അവർ കരുതലോടെ ശ്രദ്ധിച്ച് അതിന് വളമൊക്കെ ഇട്ടിട്ടാണ് അത് അത്രത്തോളം എത്തിക്കുന്നത് പക്ഷേ അതിൻ്റെ വിലയിടിച്ചിൽ ഇവരെ വല്ലാതെ തളർത്തുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ പശുക്കളെ വളർത്ത്ന്നത്പോലെ തന്നെ പച്ചക്കറി വളർത്തുന്നവരുണ്ട് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല അതേപോലെ അവർ കടയിൽ കൊട്ത്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അതേപോലെ സ്വന്തം ആവശ്യത്തിന് മാത്രമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് പക്ഷേ പുതിയ തലമുറക്ക് ഏറ്റോം കൂടുതൽ ആവശ്യം അധികം കഷ്ടപ്പെടാനൊന്നും പറ്റില്ല അവരിക്ക് വേണ്ടത് എന്താച്ചാൽ പൈസ മാത്രമാണ് പൈസ ഉണ്ടാക്കുക സ്വന്തം കാര്യം ജീവിക്കുക ഭയങ്കര ആഡംബരത്തിൽ വീട്ടിൽ കുറെ കാറ് മേടിക്കുക വലിയ വീട് കെട്ടുക ഇതൊക്കെ സ്വർണ്ണം മേടിക്കുക ആഡംബരത്തിൽ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടീട്ട് എത്രത്തോളം വലിയ ലൈഫ് ഉണ്ടാക്കാൻ പറ്റോ അവർ അതിന് വേണ്ടീട്ടാണ് ഇന്നത്തെ തലമുറ ശരിക്കും ജീവിക്കുന്നത് തന്നെ വലിയ ആഡംബരപരമായിട്ടുള്ള കാറ്കൾ ഫോണുകൾ ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ പഠിക്കുന്ന കാലത്തായാലും അവർ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടായാലും ഒരു ജോലി ചെയ്യുന്ന സമയത്തായാലും അവർ ചിന്തിക്കണത് അവരുടെ ഭയങ്കര മാറ്റം അതു കണ്ട് ബാക്കിയുള്ളവർ അസൂയപ്പെടണം അവർക്ക് വല്യൊരു മാറ്റൊണ്ടാവണം എന്ന് മാത്രണവർ ആലോചിക്കുന്നത് സ്വന്തം ദിവസം ഒരാൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം എവിടുന്നാണോ ഉണ്ടാവുന്നത് എത്ര വിഷം കലർത്തിട്ടാന്നോ അത് വേറെ സംസ്ഥാനത്തീന്ന് കൊണ്ടു വരുന്നത് അതൊന്നും അവർക്ക് ചിന്തിക്കണ്ട ആവശ്യമില്ല കാരണം കയ്യിൽ പൈസയുണ്ട് പൈസ കൊണ്ട് പോയിട്ട് ഇപ്പം വലിയ മാളുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള പച്ചക്കറികടേലോ കൊടുത്താൽ പൈസ കൊടുക്കുന്നു എത്ര വില കൂടുതൽ ഇപ്പം സവാളക്ക് കുത്തനെ വില കൂടി സവാളക്ക് വില കൂടീന്ന് പറഞ്ഞാൽ സവാള പൈസയുള്ളവർ ഉപയോഗിക്കാണ്ട് നിക്കോ അവർക്ക് തക്കാളി വേണം തക്കാളിക്ക് വില കൂടിയാൽ അവർ ഉപയോഗിക്കാണ്ടും നിക്കില്ല അവർ പിടികേല് പോകും പൈസ കൊടുക്കും അവർ സാധനം വാങ്ങിക്കും അവർക്ക് പൈസയുള്ളവന് ഒരു വിചാരമുണ്ട് ഞാനാണ് വലുതെന്നുള്ള കാര്യം അപ്പോൾ വിലകയറ്റം ഒന്നും പണക്കാരനേന്നും ബാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറേനെ കാരണം അവരുടെ കയ്യിൽ പൈസയുണ്ട് അപ്പോൾ അതേപോലെ ഇവർക്ക് കൃഷീനോടൊന്നും ഒരു താൽപ്പര്യമില്ല കൃഷി എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മൾ കൃഷി ചെയ്തട്ടില്ലങ്കിലും വേറെ ആരുടേങ്കിലും കൃഷി ചെയ്യും നമ്മളവിടെ പോയിട്ട് വാങ്ങും അല്ലെങ്കിൽ വിഷമടിച്ചത് നമ്മൾ കഴിക്കും അത്രത്തോളം വിഷം അടിച്ചിട്ടുള്ള സാധനമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന പച്ചക്കറി നമ്മളെത്ര കഴുകിയാലും എന്ത് ചെയ്താലും അതിലത്തെ വിഷാംശം ഒന്നും പൂർണ്ണമായിട്ട് മാറുന്നില്ല പക്ഷേ അതൊന്നും തലമുറക്ക് അറിയേണ്ട ആവശ്യമില്ല അവർ പ്രധാനമായിട്ടും സ്വന്തം കാര്യം ചെയ്യുക സ്വന്തം നിലക്കും വിലക്കും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാ മറ്റുള്ളവന് മുന്നിൽ ഞെളിഞ്ഞു നടക്കുക അത് മാത്രമെ ഇപ്പൊഴത്തെ കുട്ടികൾക്ക് അറിയണ്ട ആവശ്യമുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർക്ക് അവർ വേറൊന്നും നോക്കുന്നില്ല ഇപ്പം പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് അതെങ്കിലും അതിൻറ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം കഷ്ടപ്പെടാൻ പറ്റില്ല ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരക്കാണെങ്കിൽ കംപ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുക ഒരു കണ്ണട വെക്കുക അവർക്ക് അത് അതിന് വേണ്ടീട്ടുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാ കൃഷി ചെയ്യുന്ന ആണെങ്കിൽ നിലം ഒരുക്കണം മണ്ണ് ഒക്കെ മാറ്റിയിട്ട് മണ്ണ് കിളച്ചിട്ട് കൈക്കോട്ടുകൊണ്ട് മണ്ണ് കിളച്ചിട്ട് ദൂരെ മാറ്റിയിട്ടിട്ട് വലിയൊരു ഭൂമി കൃഷിക്ക് വേണ്ടീട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാക്കിട്ട് മാറ്റണം ഇതക്കെ കഷ്ടപാടുള്ള പണിയാണ് മനുഷ്യൻ അദ്ധ്വാനം വേണം വിയർപ്പ് ഉണ്ടാക്കുന്ന പണിയാണ് നമ്മളാരോഗ്യം നല്ലോണം ആവശ്യമാണ് കരുത്തക്കില്ല ആവശ്യമുള്ള ജോലിയാന്ന് കൃഷി മണ്ണക്കെ ഇങ്ങനെ മാറ്റിയിട്ട് അവിടെ കൃഷി ചെയ്യണം പച്ചക്കറി നടുന്നതാണെങ്കിൽ പച്ചക്കറീൻ്റെ വിത്തൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് കുത്തീട്ട് അവിടെ തടമൊക്കെ ഒരുക്കണം തടമൊരുക്കിയാൽ മാത്രം പോരാ അത്തിൽ രാവിലെയും വൈകുന്നേരവും നമ്മളെ സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ കൃഷി നോക്കണം ഇപ്പം ചെറിയ ചെടിയായാലും വലിയ ചെടിയായാലും ഇപ്പം മരം വളർത്തുന്നതാണെങ്കിലും ഒരു മരം നട്ടിടവിട പോയാൽ മരമുണ്ടാവില്ല അപ്പം മരം നേരെ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എത്ര അളവിൽ വെള്ളം വേണം വെള്ളം കൂടി പോയാലും പ്രശ്നമാണ് വെള്ളം കുറഞ്ഞ് പോയാലും പ്രശ്നമാണ് അപ്പോൾ രാവിലെ സൂര്യൻ വരുന്ന അതേ സമയത്തിന് നമ്മൾ വെള്ളൊഴിച്ച് കൊടുക്കണം വൈകുന്നേരായാലും വെള്ളൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ് കൂടി അതിൽ ഇമ്പോർട്ടൻറ്റാണ് ഇപ്പം ഏറ്റോം കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് ടൗണിലാണ് ടൗണില് ഇവർ വലിയ രണ്ട് നില കെട്ടിടോം മൂന്ന് നില കെട്ടിടോം ഗ്ളാസൊള്ള വീടെക്കെ കെട്ടും പക്ഷേ അതിൽ കൃഷി ചെയ്യാൻ സ്ഥലോണ്ടാവില്ല ആകെ അതിൽ സ്ഥലോണ്ടാവുന്നത് മുറ്റത്ത് പാർക്ക് ചെയ്യാനൊരു കാറ് പാർക്ക് ചെയ്യാനൊരു സ്ഥലോം പിന്നെ ഒര് രണ്ട് മൂന്ന് ചെടിച്ചട്ടി ഒര് പത്ത് പതിനഞ്ച് ചെടിച്ചട്ടിയൊക്കെ വെക്കാൻ ടെറസ്സിൽ സ്ഥലോണ്ടാവും ടെറസ്സിൽ സ്ഥലമുണ്ട് പക്ഷേ എന്നാലും അത് ഉപയോഗിക്കില്ല കാരണം അതിന് കഠിനാദ്ധ്വാനം വേണം അതിന് മനുഷ്യൻ്റെ അദ്ധ്വാനം ആവശ്യമാണ് അതുകൊണ്ടവർ ചെയ്യില്ല മെയ്നായിട്ടുള്ള കാര്യം എന്താന്ന് വച്ചാൽ വിയർപ്പ് ഒഴുക്കൻ വേണ്ടി പറ്റില്ല അവർക്ക് വെറുതെ ഇരുന്ന് പൈസയ്ണ്ടാക്കണം വെറുതെ ഇരുന്ന് അവർക്ക് ഫുഡ് കഴിക്കണം അത് മാത്രമേ പുതു തലമുറക്ക് ആവശ്യമുള്ളൂ ആ ചിന്താഗതിയാന്ന് ആദ്യം മാറേണ്ടത് പുതിയ തലമുറയിലെ പുതിയ തലമുറ കൃഷിയിലേക്ക് കടന്ന് വന്നാൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും മാറ്റൊണ്ടാവുള്ളു അല്ലെങ്കിലിനിയും വിഷം കഴിച്ച് നമ്മൾ മരിക്കേണ്ടി വരും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്